ഹലോ ഇത് ഗ്യാസ് ഏജൻസി അല്ലേ നിങ്ങളുൾടെ സേവനം ഞാൻ എനിക്ക് ഗ്യാസ് തീർന്നപ്പോൾ നിങ്ങൾ എനിക്ക് പെട്ടെന്ന് എത്രയും പെട്ടന്ന് തന്നെ എത്തിച്ച് തന്നതിൽ നിങ്ങളുടെ സേവനത്തിന് ഞാൻ നന്ദി പറയുന്നു നിങ്ങളുടെ ഈ പിന്നെ മറ്റ് ഏജൻസികൾ ചെയ്യാത്ത സേവനം നിങ്ങൾ ചെയ്തുതന്നതിന് നിങ്ങൾക്ക് എനിക്ക് അതിയായ നന്ദിയും കടപ്പാടുമുണ്ട് നിങ്ങളുടെ ഈ പ്രവൃത്തിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു എനിക്ക് നിങ്ങളുടെ സേവനം വളരെ നല്ലതാണ് ഞാൻ എല്ലാ മറ്റുള്ളവരോടും നിങ്ങൾ ചെയ്തുതന്ന ഉപകാരം പറയും നിങ്ങൾക്ക് വളരെയധികം നന്ദി നിങ്ങളുടെ ആ നല്ല മനസ്സിന് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടു തന്നീടുകയും അത് ചെക്ക് ചെയ്തിട്ട് പോവുകയൊക്കെ ചെയ്തതിനെ കുറിച്ച് ഞാൻ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് നിങ്ങളുടെ ആ നല്ല പ്രവൃത്തിക്ക് നിങ്ങളാ അത് ചെക്ക് ചെയ്തുതന്ന് കൊണ്ട് വെച്ച് ചെക്ക് ചെയ്തിട്ട് പോയതുകൊണ്ട് എനിക്ക് വളരെയധികം ഇതുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ മുമ്പൊക്കെ എനിക്ക് ഇവന്മാർ കൊണ്ട് തന്നിട്ട് പോവും അവിടെ കൊണ്ട് വെച്ചിട്ട് പോവുകയേ ഉള്ളായിരുന്നു പിന്നെ ഞാൻ തന്നെത്താനെ എടുത്തുകൊണ്ട് പോവണമായിരുന്നു അതിപ്പം നിങ്ങൾ അത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് അങ്ങ് പോയതിൽ എനിക്ക് അതിയായ നന്ദിയുണ്ട്